ഇപ്പോൾ നമ്മളൊരു പാട്ട് സെറ്റ് അതായത് പരിപാടിക്ക് തയ്യാർ എടുക്ക എടുക്കണമെന്ന് മാത്രമല്ല റെക്കോർഡിങ്ങാണെങ്കിലും അല്ലെങ്കിൽ കച്ചേരി അങ്ങനത്തെ പരിപാടി ആണെങ്കിലും പാട്ട് ഗാനമേള അങ്ങനത്തെ പരിപാടി ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഏത് ഏതാണോ പാട്ട് പാടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പാട്ട് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വരികളും അങ്ങനത്തെ ഈണവും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നമ്മൾ മനസിലാക്കണം അതിനു നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ പാട്ട് കൃത്യമായിട്ട് കേൾക്കണം അല്ലെങ്കിൽ എന്താ അവർ അവർ ഉദ്ദേശിക്കണ ഈണം അതായത് ആ പാട്ടിന് നേരത്തെ റെക്കോർഡ് ചെയ്ത പാട്ടാണെങ്കിൽ അതായത് നമ്മള് ഗാനമേള അങ്ങനത്തെ പരിപാടിക്കാണെങ്കിൽ നേരത്തെ റെക്കോർഡ് ചെയ്ത പാട്ടാണെങ്കിൽ ആ പാട്ട് കൃത്യമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അതിൻ്റെ ഈണം കൃത്യമായി മനസിലാക്കുക അല്ലെങ്കിൽ കേട്ട് മനസിലാക്കണം പിന്നെ അതിൻ്റെ വരികൾ കൃത്യമായി വായിച്ചു മനസിലാക്കണം ഇന്ന ഇന്ന ആ ഒരു രീതി പല്ലവി ഏതാണ് അനുപല്ലവി ഏതാണ് ഹൈ പിച്ച് ആണോ ലോ പിച്ചാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതെവിടെയാണ് ഹൈ പിച്ച് വരുന്നത് എവിടെയാണ് ലോ പിച്ച് വരുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് കൃത്യമായി മനസിലാക്കി അത് ആദ്യം ശ്രദ്ധിക്കണം പിന്നെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയണത് നമ്മുടെ ഈ ശബ്ദം നമ്മുടെ ശബ്ദം കൃത്യമായിട്ട് ഇപ്പോൾ ഭക്ഷണ രീതി ആണെങ്കിലും അതുപോലെ എന്താ പറയുക നമ്മള ഉച്ചാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാൻ വേണ്ടീട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ സൗണ്ട് സൗണ്ടിൻ്റെ അതായത് നമ്മുടെ ശബ്ദത്തിൻ്റെ വേരിയേഷൻ ലോ പിച്ച് ആ ഒരു റെഡി ആക്കാൻ വേണ്ടീട്ട് സാധകം ചെയ്യണം കൃത്യമായിട്ട് പിന്നെ വെള്ളം നമ്മള് കുടിക്കുന്ന വെള്ളം ചൂടുവെള്ളം ആയിരിക്കണം തണുപ്പുള്ള വസ്തുക്കൾ അധികം കഴിക്കാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങള് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കാറ്